എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നു പറഞ്ഞാൽ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണിനെ കുറിച്ച് പറയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മൊബൈൽ ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പം ഞാനെൻ്റെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ് കളിക്കാൻ കൊടുക്കുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാനെൻ്റെ മൊബൈല് വഴിയാണ് കാണിച്ച് കൊടുക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള ഉപയോഗമാണ് അതിനകത്ത് കിട്ടുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻറർനെറ്റ് വഴി സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അപ്പത്തന്നെ നമുക്ക് കിട്ടും കിട്ടുന്നതായിരിക്കും നമുക്കിപ്പോൾ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് പഠിക്കാനുള്ളതെല്ലാം അതിനകത്തന്നെ കിട്ടുന്നുണ്ട് പിന്നെ അവർക്ക് എജുക്കേഷൻ പരമായിട്ടും ഇൻറർനെറ്റ് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാനും എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും അറിയാൻ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ ഇതിൻ്റെ നെഗറ്റീവെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികള് വേണ്ടാത്ത കുറെ ശീലങ്ങൾ എല്ലാം കാര്യങ്ങളും പഠിച്ചു വെക്കാൻ അപ്പം കുട്ടികൾ നാശാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് വേണ്ടാത്ത കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതൊക്കെ എൻ്റെയൊരു അതായത് ഒരു നെഗറ്റീവായിട്ടാണു തോന്നുന്നത് വേറെ ബാക്കിയുള്ളതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ കൂടെയിരിക്കുവാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടാകില്ല ഇതൊക്കെയാണ് മെയിനായിട്ട് നെഗറ്റീവെന്നൊക്കെ പറഞ്ഞാൽ